എൻ്റെ ഗ്രാമമെന്ന് പറയുന്നത് കൂടൊല്ലു ജില്ലയാണ് അവിടെ എന്നു പറയുന്നത് എല്ലാ ഉത്സവങ്ങളാണെങ്കിലും പരുപാടികളാണെങ്കിലും എല്ലാറ്റിനും ഇടയിൽ എന്തായാലും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഭജന എന്നു പറയുന്നത് ഭജന എന്നു പറയുമ്പോൾ ഒരു സംഗീതം തന്നെയാണ് ഒരുപാട് സംഗതികളും കാര്യങ്ങളു ഒന്നും ഇല്ലെങ്കിലും സംഗീതത്തോട് അനുബന്ധിച്ചുള്ളൊരു ഒരു കാര്യം തന്നെയാണ് ഭജന എന്നുപറയുന്നത് നമ്മുടെ കൂടെല്ലു ജില്ലാ എന്ന് പറയുന്നത് ഗുഡല്ലൂ ഗ്രാമം എന്നുപറയുന്നത് ഭയങ്കരമായിട്ട് ഭജനക്ക് ഭയങ്കരമായിട്ട് പ്രാധാന്യം കൊടുക്കുന്നൊരു സ്ഥലം തന്നെയാണ് ഒരുപാട് പരുപാടികളിലാണെങ്കിലും ഉത്സവങ്ങളിലാണെങ്കിലും ഒരുപാട് ഭജനകളും കാര്യങ്ങളൊക്കെ നടത്താറുണ്ട് നമുക്കൊരു ക്ലബ്ബുണ്ട് ആർ ഡി എഫ് ആണെന്ന് ആർ ഡി എഫ് ആണ് അതിൻ്റെ പേര് അന്തസ് നഗർ ഫ്രണ്ട്സെന്നാണ് ഒരു ക്ലബ്ബിൻ്റെ പേര് അതിൻ്റെ ഭാഗമായിട്ട് രാംദാസ് നഗർ ലേഡീസ് വിങ് സ്ത്രീകൾക്കായിട്ട് ഒരു അവിടെ തന്നെ ഒരു സംഘടന രുപീകരിച്ചിട്ടുണ്ട് ഓ അവിടെയാണ് സാധാരണ ആയിട്ട് ഭജന കൂടാറുള്ളത് ആഹ് അവിടെ മാസം മാസം പൈസയെല്ലാം കൊടുത്തിട്ട് ഫീസെല്ലാം കൊടുത്തിട്ട് ഭജന കുട്ടികളെ കൊണ്ട് പാടിപ്പിക്കുന്ന ഒരു രീതിയുണ്ട് ഒരു ക്ലബ്ബിൽ ഞാനും അംഗമാണ് ഒരു ഭജന സമയത്ത് അവിടെ ഒരു ടീച്ചറുടെ കൂടെ പോകാനും ഒരു കുട്ടികളെ നിയന്ത്രിക്കാനും എല്ലാം ചിലമാസങ്ങളിൽ എനിക്കും പോകാൻ പോകേണ്ടിവരാറുണ്ട് ഭജനാ എന്നു പറയുമ്പോൾ ഒരു നമ്മുടെ കൂടൽ എന്നു പറയുമ്പോൾ ഭജന ഇല്ലാത്ത പരുപാടി ഇല്ല എല്ലാ കാര്യങ്ങളിലും ഭജന ഉണ്ട് എന്ത് ഉത്സവത്തിനാണെങ്കിലും വാർഷികത്തിനാന്നെങ്കിലും എന്തിനാണെങ്കിലും നമ്മുടെ നാട്ടിൽ ഭജന ഉണ്ട് ഒരു ഭജനാ എന്നു പറയുന്നത് എല്ലാ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും പുരുഷന്മാരാന്നെങ്കിലും വയസ്സായവർ വരെ ഭജന എന്ത് ഭംഗിയിലാണ് പാടുന്നതെന്ന് നമുക്കു തന്നെ പറയാൻ പറ്റില്ല പക്ഷെ എനിക്കെന്നു പറയുന്നത് ഈ ഭജനയോടൊന്നും അത്ര ഒരു താത്പര്യമൊന്നുമില്ല പാട്ട് കേൾക്കാനും പാട്ട് പാടാനെല്ലാം ഇഷ്ടമാണ് പക്ഷെ ഭജന എന്ന് പറയുന്നത് ഇഷ്ടമല്ല ഇഷ്ടമല്ലയെന്ന് പറഞ്ഞാൽ കേൾക്കാനെല്ലാം ഇഷ്ടമാണ് ഇവർ പാടുന്നതു കേൾക്കാനെല്ലാം ഇഷ്ടമാണ് കാണാനും ഇഷ്ടമാണ് അവരോരോരോ ഗ്രുപ്പ് ഗ്രുപ്പ് ആയിട്ട് തിരിഞ്ഞിട്ടോരോ കോഡായിട്ടുള്ള ഡ്രെസ്സെല്ലാം ഇട്ടിട്ട് ഈ ഒരു ഹാർമോണിയവും ചിഞ്ചിലം എന്നു പറയുന്ന സ സംഭവം ഉണ്ട് അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ ഭജന പാടാറുള്ളത് ഒരുപാട് കുട്ടികളും ബെല്യവരും വയസ്സായവരൊക്കെലെ വയസ്സായവരൊക്കെ ഭജന ഭയങ്കരമായിട്ട് പാടുന്നത് കേട്ടിട്ടുണ്ട് ഭജനയെന്നു പറയുമ്പോൾ നമ്മുടെ നാട്ടിലെങ്ങനെ ഒരു ക്ലബ്ബുള്ളതുകൊണ്ട് തന്നെ അവിടെ കുറേ കുട്ടികൾക്ക് ഭജന ചെയ്യാനും ഭജന പാടാനും അതുപോലെതന്നെ അവരെ പഠിപ്പിക്കാനുള്ള പ്രത്യേക ടീച്ചറെല്ലാം ഉണ്ട് ആഹ് അവർക്ക് മാസാം മാസം ഫീസ് കൊടുത്തിട്ട് ഒരുപാട് ഇത് പിള്ളേരെല്ലാം നമ്മുടെ നാട്ടിൽ ഭജന പഠിക്കുന്നുണ്ട് അങ്ങനെ ഭജന ആയാലും ബേറെന്തെങ്കിലും ഡ്രോയിങ്ങും കാര്യങ്ങളും ഒക്കെ ഇത് ഭജന അതോടൊപ്പം തന്നെ നടത്താറെല്ലാം ഉണ്ട് പക്ഷെ ഭജന എന്നു പറയുന്നതാണ് നമ്മുടെ നാട്ടിൽ മെയിൻ എന്നു പറയുന്നത് എല്ലാ കാര്യങ്ങൾക്കും ഭജന ഇല്ലാത്തൊരു സംഭവം ഇല്ലാ എന്നു തന്നെ പറയാം ഭജന എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള കാര്യമാണ് എല്ലാവരും ഭജന കേൾക്കാനായിട്ട് ആഹ് എവിടുന്നെല്ലാം ബരും കുറേ അമ്പലം എല്ലാം ഒരു നാടാണ് അതിൽ പ്രസിദ്ധമായിട്ടുള്ള ഭയങ്കര അറിയപ്പേഡ് പെട്ടിട്ടുള്ള ഒരു സ്ഥലമെന്നു പറയുന്നത് നമ്മുടെ മദ്ദൂർ അമ്പലം തന്നെയാണ് ആ ഒരമ്പലത്തിൽ ഒരുപാട് തവണ നമ്മുടെ ക്ലബ്ബിൽ നിന്നും കുട്ടികളും മുതിർന്നവരെല്ലാം ഭജന പാടാനായിട്ട് പോയിട്ടുണ്ട് അതുപോലെതന്നെ കൂടൽ പോലെത്തന്നെ മീപ്പൊലി പാറക്കാട്ട ശാസ്താംകോട്ട അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അവിടെയെല്ലാം ഒരുപാട് അമ്പലങ്ങളും ഭജന മന്ദിരങ്ങളെല്ലാം ഉണ്ട് പാറക്കാട്ടാ അയ്യപ്പ ഭജന മന്ദിരം ഉണ്ട് അവിടെ ഒരുപാട് കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഭജന പഠിക്കുകയും പാടുകയും ഓരോരോ മാസം ബാലഗോകുലം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഒക്കെ ഉണ്ട് ഭജന പാടുന്ന തന്നെയാണ് ആ ഒരു ബാലഗോകുലം എന്ന് പറയുന്ന ഒരുപാട് കുട്ടികൾ പല സ്ഥലത്തു നിന്നെല്ലാം വന്നിട്ട് ഭജന പാടുകയും അവർക്ക് പകുതി ആകുമ്പോൾ ചായയും കടിയെല്ലാം കൊടുക്കുകയും കുട്ട് കുട്ടികളോടൊപ്പം തന്നെ മുത് വലിയവരും വലിയവരും കുറേ ഭജന പാടുകയും അവരോടൊപ്പം കൂടുകയും എല്ലാം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ബാലഗോകുലത്തിന് ഞാനും പോയിട്ടുണ്ട് കുറേ തവണ ആഹ് വലുതായിട്ടും പിന്നെ പോയിട്ടില്ല ഭജന എന്നു പറയുന്ന ന്താ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് എനിക്ക് അതുപോലെ തന്നെ പാടുന്ന കേൾക്കാനൊക്കെ ഭയങ്കര രസമാണ് സംഗീതത്തിൻ്റെ ഒരുപാട് സംഗതികളും കാര്യങ്ങളുംഅങ്ങനെ പാട്ടിലെ പോലൊന്നും ഇല്ലെങ്കിലും ഭജനാ എന്നു പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു കാര്യം തന്നെയാണ് കൂടുള്ളുല് അ ഒരു നമ്മുടെ നാട്ടിലെ അ ഒരു ക്ലബ്ബെന്നു പറയുന്നത് ഭജനക്കാണെങ്കിലും വേറെന്ത് കാര്യങ്ങളിലാണെങ്കിലും ഭയങ്കരമായിട്ട് കുട്ടികളായാലും മുതിർന്നവരാന്നെങ്കിലും എന്ത് വയസ്സും കാര്യങ്ങളൊന്നും നോക്കാതെ എല്ലാവരെയും എല്ലാറ്റിലും പങ്കെടുപ്പിക്കുക എന്നുള്ള പറയുന്നതാണ് ഇവരുടെ ഒരു അ ലക്ഷ്യം എന്നു പറയുന്നത് അതുപോലെതന്നെ ഒരുപാട് സമ്മാനങ്ങളും കാര്യങ്ങളൊക്കെ കുട്ടികൾ വാങ്ങിച്ചിട്ടുണ്ട് ഭജനക്കാണെങ്കിലും ഭജന മത്സരങ്ങളിലും ഒക്കെ അവർ പങ്കെടുക്കുകയും ഫസ്റ്റ് പ്രൈസ് നേടുകയും അതുപോലെതന്നെ വേറെ കാര്യങ്ങളിലും പരിപാടി പരിപാടികളിലും എല്ലാം നമ്മുടെ ഒരു അ ഒരു ക്ലബ്ബിലത്തെ കുട്ടികൾ പങ്കെടുക്കുകയും പ്രൈസ് സമ്മാനം വാങ്ങുകയും അംഗീകാരം നേടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഭജന ടീച്ചറാണ് അവരെ ഭജന പഠിപ്പിക്കുന്നത് അതുകൊണ്ടു തന്നെ അവർ താള ബോധത്തോടു തന്നെയാണ് ഭജന പഠിക്കുന്നതും പാടുന്നതും എല്ലാം ഭജന എന്നു പറയുന്നത് സാധാരണ ഭജന ഉണ്ട് അതേപോലെ കുണുക്ക് ഭജന അങ്ങനെ കുറേ ഭജനകളുണ്ട് അതിൽ കുറേ ഭജനകൾ ഞാൻ കേട്ടിട്ടുണ്ട് ഉം തേരോത്ത് അമ്പലങ്ങളിൽ തേരോത്ത് എന്ന സ്ഥലത്ത് അമ്പലങ്ങളിൽ ഉത്സവം ആണെങ്കിലും പരുപാടികളാണെങ്കിലും റോഡിലെ കൂടെ നടന്ന് പോകുമ്പോൾ കൂടി ഘോഷയാത്ര പോകുമ്പോൾ കൂടി ഭജന പാടിക്കൊണ്ടാണ് അമ്പലങ്ങളിലേക്ക് ഘോഷയാത്ര പോകാറുള്ളത് അതൊക്കെ ഭയങ്കര ഒരനുഭവം തന്നെയാണ് ഭജന എന്നുപറയുന്നത് ഒരുപാട് അംഗികാരവും പ്രധാന്യമൊക്കെ നൽകുന്നൊരു സ്ഥലം തന്നെയാണ് ഭജന ഇതുപോലെ വേറേതെങ്കിലും സ്ഥലങ്ങളിൽ ഭജനയ്ക്ക് അംഗികാരവും പ്രാധാന്യവും എല്ലാം നൽകുന്നുണ്ടോ എന്നുള്ളത് എനിക്കറില്ല പക്ഷെ കൂഡലൂ പറയുന്നത് എല്ലാ സ്ഥല സ്ഥലങ്ങളിലെയും പോലെ പോലെയല്ല കൂഡലൂ എന്നു പറയുന്നത് ഭജനക്ക് കുറച്ച് കൂടി പ്രാധാന്യം നൽകുന്ന ഒരു സ്ഥലം തന്നെയാണ് കൂഡലു എന്നു പറയുന്നത് ഭജനകളിൽ നമ്മുടെ ക്ലബ്ബിലും വേറെ നമ്മൾ പാടാൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ പ്രധാനിയായിട്ട് കുറച്ചും കൂടി അധികം ഉപയോഗിക്കുന്നതെന്നു പറയുന്നത് ഒരു ഹാർമോണിയവും ചിഞ്ചിലവും തന്നെയാണ് വേറെ ഉപകരണവും ഒന്നും ഭജനക്ക് ഉപയോഗിക്കാറില്ല ഒരു ഹാർമോണിയത്തിൻ്റെ സംഗീതത്തിലൂടെയും പിന്നെ ഒരു ചിഞ്ചിലം ചിഞ്ചിലാണ് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കാറ് ഹാർമ്മോണിയം അങ്ങനെ നല്ലോളം ഉപയോഗിക്കാറൊന്നുമില്ല കുട്ടികൾ ബുക്കൊക്കെ എടുത്ത് ഒരു ക്ലാസ്സിന് വരുന്നതുപോലെ തന്നെയാണ് ഭജന പഠിക്കാനായിട്ട് വരുന്നത് എല്ലാവർക്കും ഒരു ഭയങ്കര ആഗ്രഹമാണ് ഭജന പഠിക്കുക ഭജന പാടുക എല്ലാ സ്ഥലങ്ങളിലും പാടുക അറിയപ്പെടുക എന്നുള്ളത് അതുകൊണ്ടുതന്നെ അത് കൂഡ്ലൂല് ഒരുപാട് അമ്പലങ്ങളിലും അടൂർ ക്ഷേത്രത്തിലായാലും പാറക്കാട്ട് അയ്യപ്പ ഭജന മന്ദിരത്തിലായാലും കുറേ ഭജന മന്ദിരങ്ങളിലൊക്കെ ഉള്ള ഒരു നാടുതന്നെയാണ് നമ്മുടെ കൂഡല്ലൂ എന്നു പറയുന്നത് അ ഒരു സ്ഥലത്ത് ഒരുപാട് ഭജനകൾ പാടാനും ഒരുപാട് സമ്മാനങ്ങളൊക്കെ നേടാനും നമ്മുടെ അ ഒരു ക്ലബ്ബിലത്തെ കുട്ടികൾക്ക് സാധിച്ചിട്ടുണ്ട് അവർ പാടുമ്പോൾ എനിക്കും ആഗ്രഹമുണ്ട് അവരുണ്ടേ ഭജന പാടുക എന്നുള്ളത് പക്ഷെ എനിക്കതിന് ഒരു എന്താപറയുക ഒരു മനസ്സ് മനസ്സല്ല ഒരു ഒരു എന്താ കഴിവ് എനിക്കുണ്ടെന്ന് തോന്നുന്നില്ല പക്ഷെ ഭജന പാടുന്ന കുറേ കുട്ടികളുണ്ട് അവരുടെ ഒരു രീതി അവർ പാടുന്നതു കേൾക്കാനൊക്കെ ഭയങ്കര രസമാണ് ഓര് ചിഞ്ചിലം മുട്ടികൊണ്ടും ഒരു താളബോധത്തോടെ എല്ലാവരും ഒന്നിച്ചിട്ട് ആഹ് ഭയങ്കര രസമായിട്ട് പാടുമ്പോൾ അത് ഭയങ്കര രസമാണ് കേൾക്കാനായിട്ട് കൂഡലൂ എന്നു പറയുന്നത് നമ്മൾ ഒരു കന്നഡ ഒരു കന്നഡ സംസാരിക്കുന്നവരാണ് അവിടെ കൂടുതലും അതുകൊണ്ടു തന്നെ ഭജന പാടുന്നവർ കൂടുതലും വരിക കന്നഡ ആ ഒരു ലാങ്കു് ഒരു ഭാഷയിൽ നിന്നുമാണ് കൂടുതലാൾക്കാരും ഭജന പഠിക്കാനായിട്ട് വരിക മലയാളക്കാരും പോകും പക്ഷെ കൂടുതലും കന്നഡ പഠിക്കുന്നവരാണ് അവിടെ കുട്ടികളായാലും കന്നഡ പഠിക്കുന്നവരാണ് കൂടുതലും അതുകൊണ്ടുതന്നെ ഭജനാ എന്നു പറയുന്നത് കന്നഡക്കാർ ഭയങ്കരമായിട്ട് പ്രാധാന്യം നൽകുന്ന ഒരു കാര്യമാണ് ഭജന എന്ന് പറയുന്നത്

ഇപ്പോൾ ഭജന എന്നു പറയുന്നത് നമ്മുടൊരു ക്ലബ്ബിൽ ഭയങ്കരമായിട്ട് പ്രാധാന്യം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് മുതിർന്നവരാണെങ്കിലും കുട്ടികളെ ഭയങ്കരമായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് അവർ മാതാപിതാക്കൾ ആണെങ്കിലും കുട്ടികളാണെങ്കിലും എല്ലാം ശ്രമിക്കാറുണ്ട് അവർ ഭയങ്കരമായിട്ട് ഭജന പാടുന്ന ഒരു കുട്ടികൾ തന്നെയാണ് ഞാൻ വേറെ എവിടെയും ഇങ്ങനെ ഒരു ഭജന പാടുന്ന ഒരു ക്ലാസ് വെക്കുകയും അത് മാസം മാസം ഫീസ് കൊടുത്ത് വേറെന്തൊക്കെ ക്ലാസ് പഠിക്കുന്ന പോലെ ഈ ഭജന പഠിക്കാൻ പോകുന്നതൊന്നും ഞാനിതുവരെ കണ്ടിട്ടില്ല കൂഡലൂ ജില്ലയിൽ ഭയങ്കര പ്രസിദ്ധമായിട്ടുള്ള കാര്യം തന്നെയാണ് ഭജന